കോഴിക്കോട് ജില്ല നോക്കുമ്പോൾ മറ്റ് ജില്ലകളെ വെച്ച് അപേക്ഷിക്കുകയാണ് എന്നുണ്ടെങ്കിൽ കോഴിക്കോട് സ് പൊതുവേ കുറച്ച് ചൂട് കൂടുതലുള്ള ഒരു കാലാവസ്ഥയാണ് അപ്പോൾ ഒരു രാവിലെയാണെങ്കിലും നേ രാത്രിയാണെങ്കിലും ഏത് സമയത്താണെങ്കിലും ഒരു ചൂട് കലർന്ന ഒരു സിറ്റുവേഷനുള്ള ഒരു കാലാവസ്ഥയാണ് മൊത്തത്തിൽ ഉണ്ടാവുക ദേ ഇങ്ങനെ തണുപ്പ് കാര്യങ്ങളൊക്കെ കുറവായിരിക്കും പിന്നെ തണുപ്പ് കാര്യങ്ങളൊക്കെ വരുന്നത് മഴക്കാലം അങ്ങനത്തെ ഒക്കെ സീസൺ ടൈമിൽ മാത്രമാണ് പിന്നെ ഒരു കാലാവസ്ഥയിൽ ഒരു ചേഞ്ച് വരുന്നത് എന്നാ മഴക്കാലത്ത് ആണേ തന്നെ മഴ പെയ്തു തോരുമ്പം തന്നെ ഒരു ചൂട് കലർന്ന ഒരു ഫീലായിരിക്കും എപ്പോഴും ഉണ്ടാകാറുള്ളത് ഇപ്പം നമുക്ക് നമ്മുടെ ഒരു പുറമെനിന്നുള്ള ആൾക്കാരൊക്കെ വരുമ്പോൾ അവർക്ക് ഒരു കാലാവസ്ഥയിൽ ഒരു ബുദ്ധിമുട്ടൊക്കെ വരാറുണ്ട് പക്ഷേ സ്വതവേ നമുക്ക് ഒരു ശീലമായ ഒരു അവസ്ഥ തന്നെയാണ് പിന്നെ അത് ഇപ്പം ഈ ചൂട് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഈ ബീച്ചിലും ഒക്കെ ചെല്ലുമ്പോൾ അവിടെ ഒക്കെ ഭയങ്കരമായിട്ട് ഉച്ച സമയത്ത് ഭയങ്കരമായ ചൂടും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് തന്നെ ഈ ഓരോ എന്താണ് നമ്മുടെ ഓരോരുത്തരെ ഓരോരുത്തരെ ഓരോ ബിസിനസ്സുകൾ ഒക്കെ ഇതാക്കുന്നത് എങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജ്യൂസ് കാര്യങ്ങൾ ഐസ് കൊണ്ടുള്ള ഐറ്റംസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുത്ത് ആൾക്കാരെയൊക്കെ ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ചെയ്യുകയും അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഈ ചൂട് എന്ന് പറയുമ്പം അത് ഒരു അത്യാവശ്യം രീതിയിൽ അത് എല്ലാവരെയും ബാധിക്കുന്ന രീതിയിലുള്ളതാണത് കൊണ്ട് തന്നെ ഓരോ ടൈം അനുസരിച്ച് ഇപ്പം ആൾക്കാർ പുറത്തേക്കിറങ്ങുന്ന ടൈമും ഇപ്പം വൈ വൈകുന്നേരങ്ങളിലൊക്കെ ആൾക്കാർ കൂടുതലായിട്ട് ബീച്ച് കാര്യങ്ങളിലേക്ക് ഒക്കെ വരുന്ന ഒരു സമയവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയി വരുന്നുണ്ട് പിന്നെ സീസൺ മാറുന്നത് അനുസരിച്ച് ചൂടിൻ്റെ ഇതും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചേഞ്ച് ആയി കൊണ്ടിരിക്കും അത് ഓരോ സീസണിലെയും അതിങ്ങനെ ചൂട് കൂടുകയും കുറയുകയും ആ ടെമ്പറേച്ചറിൻ്റെ ഇതൊക്കെ കൂടിയും കുറയുകയും ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ മഴക്കാലത്ത് ആകുമ്പോൾ അത്യാവശ്യം നല്ല മഴയും കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ടെങ്കിലും സ്വതവേ അതും ഒരു ചൂട് കലർന്ന ഒരു കാലാവസ്ഥ തന്നെയാണ് അന്നേരം വരവ് ഉണ്ടാവാറുള്ളത് പിന്നെ മഞ്ഞ് കാര്യങ്ങളൊക്കെ ഉള്ള സീസൺസ് വന്നാലും അങ്ങനെ അത്രയും ചൂട് തന്നെയായിരിക്കും അതിൻ്റെ കൂടുതലായിട്ടും വന്നു കൊണ്ടിരിക്കുന്നത് വരണ്ട കാലാവസ്ഥ എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് ചൂട് ൻ്റെ അങ്ങേയറ്റം വരുന്ന ഒരു സിറ്റുവേഷൻസ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സിറ്റുവേഷനും കൂടിയാണ്